നിലവിൽ കോൺടാക്ട് വിശദാംശങ്ങളിലൊരു ലാൻലൈ ലാൻഡ്ലൈൻ നമ്പർ പുതുതായി ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് പാൻകാർഡ് രേഖകളിലും അപ്ഡേറ്റ് ചെയ്യാനും ഞാനാഗ്രഹിക്കുന്നു അതിന് വേണ്ടി അടുത്തുള്ള പാൻകാർഡ് സേവന കേന്ദ്രത്തിൽ സന്ദർശിച്ച് ഇതിൻ്റെ കോൺടാക്ട് വിശദാംശങ്ങൾ നിങ്ങളുടെ ഞങ്ങൾ ഇതിൻ്റെ പുതിയ ലാൻഡ്ലൈൻ നമ്പറും ചേർത്തു ചേർക്കുന്നതിനുള്ള സഹായം ഞാൻ പുതിയ ഇതിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥരോടും അഭ്യർത്ഥിക്കുകയാണ് ആവശ്യമായ രേഖകൾ ഞാൻ ഇതിനോടൊപ്പം ഹാജരാക്കുന്നു എനിക്കതിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്ത് തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നന്ദി